ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സാധാരണ എപ്പോൾ ഒന്നിച്ചിരുന്നാൽ ഒറ്റയടിക്ക് വായിച്ചു തീർക്കുക എന്നുള്ളത് നമുക്ക് അത് നടക്കത്തില്ല പിന്നെ നമ്മൾ പുസ്തകങ്ങൾ ഓരോന്ന് ഇങ്ങനെ നമ്മൾ സൺഡേ ഷാലോമോ കുടുംബ ദിവസമോ അങ്ങനെയൊക്കെയുള്ള മാസികകളൊക്കെ സാധാരണ ഞങ്ങള് വരുത്താറുള്ളത് കൊണ്ട് എങ്കിലും അതൊരു പെട്ടന്നൊന്നും നമ്മളെ കൊണ്ട് അത് ഒന്നിച്ചൊന്നും ഞങ്ങൾ വായിച്ചു തീർക്കാറില്ല നമ്മുടെ സമയം അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യം പിന്നെ നമ്മൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്നതിനെ പറ്റി ഇപ്പം വായിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ അറിയാനും ഓരോരോ അനുഭവങ്ങൾ എഴുതുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പത് നമ്മള് എങ്ക എങ്ങനെയാണോ അവരുടെ അനുഭവങ്ങളെന്ന് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എല്ലാം തന്നെ അങ്ങനെ വായിച്ചെടുക്കാറുണ്ട് പിന്നെ ഒന്നിച്ച് എന്തായാലും നമ്മളെ കൊണ്ട് ഒരു പുസ്തകമൊന്നും തീർക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരികയില്ല എന്തായാലും വായിച്ചു തീർക്കും അത് എടുക്കുന്ന ഏത് പുസ്തകമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പിന്നെ നമ്മൾ ഏതെന്തങ്കിലുമൊരു പുസ്തകത്തിൽ ഒരു അത് നമുക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും അത് വായിച്ചു തീർത്തു കഴിഞ്ഞിട്ടേ അടുത്തത് നമ്മൾ സാധാരണ എടുക്കാറുള്ളു നോക്കാറുള്ളു അങ്ങനെ വലിയ കുഴപ്പം ഇല്ലാതെ ഞാൻ പുസ്തകം വായിക്കാറുണ്ട് നമുക്ക് ഓരോരുത്തരെ നമ്മുടെ ജീവിത അനുഭവങ്ങളല്ല മറ്റൊരാൾക്കുള്ളത് അപ്പം അത്കൊണ്ട് നമ്മൾ അത് അനുസരിച്ച് ഓരോരുത്തരുടെ അനുഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പുസ്തകം സാധാരണ വായിക്കാറുള്ളത് പിന്നെ ഒത്തിരിയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു പുസ്തകമെടുത്ത് വായിച്ചു കഴിയുമ്പം ചിലപ്പം നമ്മൾക്ക് അതിനകത്ത് നിന്ന് നമുക്ക് അറിവ് കിട്ടും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഓരോ അറിവുകളൊക്കെയാണ് നമ്മൾ വേറെ പുസ്തകം വായിച്ചല്ലേ കൂടുതലും കിട്ടാറുള്ളത് ഞാൻ അങ്ങനെ ഒത്തിരിയും എനിക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയില്ലാത്ത ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് പുസ്തകം വായിച്ചു തന്നെയാണ് അപ്പം നമ്മൾക്ക് വേറെ മറ്റുള്ളവരോട് ചോദിച്ച് അത് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു പുസ്തകമെടുത്ത് വായിച്ചു കഴിയുമ്പം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും എന്ത് നമ്മൾ എന്ത് വായിച്ചാലും അതിനകത്ത് ഒരു ചെറിയ ഒരു എന്തെങ്കിലും നമുക്ക് ഒരു അറിവിനുള്ള ശകലം കുറച്ചെങ്കിലും നമ്മൾക്ക് അത് കിട്ടും ആ ഉറപ്പ് നമ്മൾക്ക് ഉള്ളത് കൊണ്ട് ഒരുമാതിരിപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ നമ്മൾ വായിക്കാറുണ്ട് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഒന്നും നമ്മളെ കൊണ്ട് വായിച്ചു തീർക്കാനോ അല്ലേ ഇന്ന് അത് പോലെ ആണെന്നോ അതങ്ങനെ ഒന്നും പറ്റത്തില്ലാത്തത് കൊണ്ട് വായിക്കും വായിച്ചു നമ്മൾ ഒരു പുസ്തകം എല്ലാ പുസ്തകം തന്നെ നമ്മൾ പൂർത്തിയാക്കും ഇത്ര ദിവസത്തിനുള്ളിലെണ്ണോ ഇത്ര മണിക്കൂറിനുള്ളിലെന്നോ നമുക്ക് പൂർത്തീകരിക്കാൻ നമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾക്കും ജോലികളുള്ളത് കൊണ്ട് എങ്കിലും നമുക്ക് ഒരു പുസ്തകം കണ്ടു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അതെന്തുവാണെന്ന് വായിച്ചു കഥകളാണെങ്കിലും അടുത്ത ലക്കത്തിലാണെങ്കിൽ നമുക്ക് അതെങ്ങനെ തീർക്കാം അത് എന്തുവാണെണ്ണ് എന്നൊക്കെയുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഒത്തിരി ശ്രമിക്കാറുണ്ട് അങ്ങെനെ എല്ലാ എല്ലാ കഥകളും നമ്മൾ ഒരുമാതിരിയൊക്ക നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ തരുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ സാധാരണ നമുക്ക് കിട്ടുമ്പൊഴേ വായിക്കാറുള്ളൂ പിന്നെ അതും പുസ്തകത്തിലൂടെ ആണെങ്കിലും നമുക്ക് ഒത്തിരി അറിവ് എന്തായാലും കിട്ടും എന്ത് എവിടെ എങ്കിലും കുറച്ചെങ്കിലും അത് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ അത് വീണ്ടും വായിക്കും എന്നാലും പെട്ടെൻ ഒരു മണിക്കൂർ കൊണ്ടു അല്ല ഇത്ര ദിവസം കൊണ്ടോ വായിച്ച് തീർക്കാൻ നമുക്ക് ഒരാൾക്കും നമ്മൾ ഒരാൾക്കും ആർക്കും ഉറപ്പൊന്നും കൊടുക്കുകയില്ല പുസ്തകം കിട്ടിയാൽ വായിക്കും അത് ഏത് പുസ്തകം എന്നില്ല ഇന്ന പുസ്തകം എന്നില്ല നമ്മൾ കിട്ടുന്നത് എല്ലാം വായിക്കാറുണ്ട്